നിങ്ങള് കഴിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ ദോശ പുട്ട് ഇഡ്ഡലി ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ടും രാവിലെ ഒക്കെ കഴിക്കാറ് അതിൻ്റെ കൂടെ ചട്ണിയോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു മിതമായ നിരക്കിലാണ് കഴിക്കാറ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഉച്ചക്ക് ചോറ് ചോറും കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കാറുള്ളത് അപ്പം അപ്പം അരി ഭക്ഷണം നമ്മൾ കഴിച്ചു എന്നും ആയി നമ്മുടെ ശരീരത്തിലേക്കുള്ള അത്യാവശ്യം കാലറീസ് അരിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും പിന്നെ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് പച്ചക്കറികള് ഇപ്പം സാമ്പാറ് പച്ചടി കിച്ചടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉച്ചക്ക് കഴിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയില് കിട്ടും പിന്നെ വൈകുന്നേരം കഴിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചായയും കടിയും അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ എണ്ണക്കടികള് പരമാവധി നമ്മള് ഒഴിവാക്കുകാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം തന്നെ നല്ല രീതിയില് നിൽക്കും നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം കിട്ടുകയാണെങ്കിൽ എണ്ണക്കടികളും അങ്ങനെ പലതും ഒഴിവാക്കുക നമ്മള് കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാതെ നോക്കുക പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് രാത്രി നമ്മള് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും മിതമായ നിരക്കിൽ കഴിക്കുക കാരണം നമ്മള് ദഹനപ്രക്രിയ കറക്ട് ആയിട്ട് നടക്കണമെങ്കില് ചപ്പാത്തിയും കാര്യങ്ങളുമൊക്കെ കഴിക്കുകയാണെങ്കില് ദഹനപ്രക്രിയ കറക്റ്റ് ആയിട്ട് നടന്നുകൊള്ളും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ്